ഓരോ ഇപ്പൊൾ ദേശീയതലത്തിൽ പോകുവാണേൽ തന്നെ അയിന് മുൻപുള്ള ഫോട്ടോ എടുത്ത് അത് പ്രദർശിപ്പിക്കുകയും അതിതു എല്ലാവരും സെലക്ട് ചെയ്യുകയും ചെയ്താണ് ഞാൻ ദേശീയതലത്തിൽ പോന്നത് വൈൽഡ് ഗ്രാഫ് ആയിട്ടാണ് എനിക്ക് താൽപര്യം അതേപോലെ മൃഗങ്ങളുടെ കൂടെല് അക്രമാസക്തരായ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസും മറ്റ് വീഡിയോസും എല്ലാം എടുക്കുകയും അങ്ങനെയാണ് ഓരോരോ പുറത്തുള്ള മറ്റുള്ളോർക്കും അറിയാൻ സാധിക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ അങ്ങനത്തെ പിക്ച്ചേഴ്സ് ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടും അത് പ്രദർശനത്തിന് വയ്ക്കുകയും അങ്ങനെയാണ് ഞാൻ എല്ലായിതിലും സെലക്ട് ആയി ദേശീയതലത്തിൽ എത്തി അവിടുന്ന് അംഗീകാരം ലഭിക്കുകയും എല്ലാം ചെയ്തിരുന്നത്